ഇന്ത്യൻ സിനിമയെ നല്ല കഥയുള്ള സിനിമകളാണ് സംഗീതവും നല്ല അതുമായി ബന്ധപ്പെട്ട നല്ലതാണ് നിങ്ങൾ ആകാശദൂത് എന്ന സിനിമ എനിക്കിഷ്ടമാണ് അതിന് നല്ലൊരു കുടുംബ ചിത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടിയാണ് സിനിമാഗാനങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടതാണ്